ഈ ബൈക്കിങ്ങ് സംഘങ്ങളുമായിട്ട് ബന്ധപ്പെടാനും മറ്റ് റൈഡർമാരെയൊക്കെ കണ്ടുമുട്ടാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ഈ റൈഡിങ് ക്ലബുകൾ ഉണ്ടാകും

അപ്പം ഈ ടീമുമായിട്ട് അതിന് കൂടുക എന്നുള്ളതാണ് ഒരു മാർഗം മറ്റൊരു മാർഗം ഈ ബൈക്ക് മീറ്റുകൾ ഇവെൻറ്റുകൾ ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ ബൈക്ക് റാലികൾ അതുപോലെ തന്നെ ബൈക്കിൻ്റെ ഷോകൾ ഉണ്ടാകും ഈ ബൈക്കർ ഫെസ്റ്റിവൽസ് ഉണ്ടാകും അതിലൊക്കെ നമ്മൾ പാഷനേറ്റ് ഇതിആയിട്ട് കൂടുക എന്നുള്ളതാണ് കാരണം അതിൽ അത്ര താല്പര്യമുള്ള ആളുകൾ അത് കണ്ടക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ അതിൽ പോയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ അവർ എന്തായാലും അവിടെ ഒപ്പം കൂട്ടും അവിടെ ഇ തന്നെ അത്ര ഇൻട്രസ്റ്റ് ഉള്ളവരും മാത്രമേ ഉണ്ടാവുകയുള്ളു പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ അത്ര വ്യാപകായിട്ടുള്ള ഒരു കാലം ആണല്ലോ അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാത്തിനും ഗ്രൂപ്പുകളുള്ളത് പോലെ തന്നെ ഇതിനും ഗ്രൂപ്പുകൾ ഉണ്ടാകും അപ്പോൾ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും വാട്സാപ്പിൽ കമ്മ്യൂണിറ്റിറ്റീസ് ആണെന്ന് ഉണ്ടെങ്കിലും

അഥവാ ഇത് തന്നെ ഈ നാട്ടിൽ തന്നെ ഇത് തന്നെ ആഴ്ചയുടെ അവസാനത്തിലൊക്കെ നടത്തുന്ന ഒരു റൈഡുകളും റയ്സുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാകും അപ്പം അവരോട് കൂടുക എന്നുള്ളതാണ് അതിനുള്ള നല്ല മാർഗങ്ങൾ പിന്നെ ബൈക്കറിടെ ബൈക്കറിൻ്റെ കഫേകൾ ഉണ്ടാകും കഫേകൾ അതുപോലെ തന്നെ ഹാങ് ഔട്ട് സ്ഥലങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ സൈറ്റുകളിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും അപ്പം ബൈക്കിങ്ങ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളായിരിക്കും അപ്പം അവ അവിടെ പോയിട്ട് അവർ വിസിറ്റ് ചെയ്യുക അതൊക്കെയാണ് ഇങ്ങനെ കമ്മ്യൂണിറ്റിയിലൊക്കെ ചേരാനുള്ള അവരുമായിട്ട് കണ്ട് മുട്ടാനുള്ളതായിട്ട് നല്ല വഴികളാണ് പിന്നെ അവരുടെ ചാരിറ്റിയുടെ ഭാഗമായിട്ടും ഒക്കെ അവർ വരുന്നുണ്ടാകും അവർ തന്നെ എന്താണ് ചെയ്യുന്നത് സംഘടിപ്പിക്കുന്ന പരിപാടികളിലൊക്കെ ഒരുമിച്ച് കൂടുക എന്നുള്ളതാകുന്നു മറ്റൊരു മാർഗ്ഗം ഇനി ഒറ്റയ്ക്ക് ഓടിക്കാം എന്ന് പറയുമ്പോൾ

എ അതൊരു നല്ലതാകുന്നു പക്ഷേ അതിനുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ചിലപ്പോൾ അത് അങ്ങനെ കുറേ പോകുമ്പോൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും അപ്പം ആ ഒരു പേടി ഉണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ താൽപര്യം ഒക്കെ ഉണ്ട് അതൊരു ഒരു തരം നല്ലൊരു വൈബാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നമുക്ക് ഫുൾ ഫ്രീഡമായിരിക്കും ഉണ്ടാവുക പിന്നെ എന്താണ് നമുക്ക് സ്വന്തം തന്നെ ഇങ്ങനെ കണ്ടെത്തി ഒരു ഫീലിങ്ങും ഒറ്റയ്ക്ക് പോകുമ്പോൾ ഉണ്ടാകും പിന്നെ അത് നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ഷെഡ്യൂൾ വെച്ച് കൊണ്ട് നമുക്ക് പോകാൻ പറ്റും പിന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ഒക്കെ പറ്റിയ നല്ലൊരു മാർഗമാണ് അത് അതുപോലെ തന്നെ പുതിയ കണക്ഷൻസ് നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാർഗമാണ് മറ്റേത് ടീമായിട്ട് പോകുമ്പോൾ പുതിയ കണക്ഷൻസൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും

വരും എന്ന് ഉള്ളത് കൊണ്ട് ഞാൻ അത് വല്ലാതെ സജസ്റ്റ് ചെയ്യാറില്ല ഇടയ്ക്ക് ഒക്കെ ചെറിയ ദൂരത്തിലേക്ക് ഒക്കെ അത് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇത്രയും തന്നെയാണ്